എൻ്റെ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ പ്ര പ്രദേശത്ത് അടുത്ത് ഒരു കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഫോറെസ്റ്റ് നോക്കിയാൽ പുലിയൊക്കെ വരാറുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതുപോലെ ആന കുരങ്ങന്മാർ അവര് അവ കുരങ്ങന്മാർ ഒക്കെ വീട്ടിൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് പിന്നെ എൻ്റെ പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്തെ പ്രദേശമാണ് തോൽപ്പെട്ടി അതിലൂടെ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ തോൽപ്പെട്ടി അവിടെ ഫുൾ വന്യമൃഗങ്ങൾ തന്നെയാണ് മാന് കാട്ടുപോത്ത് അതിനെ ഒക്കെ കാണാറുണ്ട് പിന്നെ വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവര് ഇപ്പൊൾ ഇപ്പം ഒരു പാമ്പിനെ കണ്ടാൽ തന്നെ തല്ലി കൊല്ലാതെ ഫോറെസ്റ്റിൽ ഉള്ളവരെ റിപ്പോർട്ട് ചെയ്ത് അവര് വന്ന് എടുത്ത് പൊയ്ക്കോളും അതുപോലെ അതുപോലുള്ള വന്യജീവി സംരക്ഷണമാണ് ഇവിടെ നട ഇവിടെ നട നൽകുന്നത്